ഹലോ സർ ആ തീർച്ചയായിട്ടും ഏത് ഡേയ്റ്റിലാണ് സർ പോവാൻ ഉദ്ദേശിക്കുന്നത് ആ ഊട്ടിയിൽ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് സർ ഈ വീക്കിൽ നല്ല രീതിയിലുള്ള ക്ലൈമറ്റുമാണ് നമ്മൾക്ക് ഫ്ളവർ ഷോ പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് ആ അതേ അതേ അതേ സർ ഈ സമയത്ത് ഊട്ടി വിസിറ്റ് ചെയുന്നതായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും

ആ ഫുഡ് ഇവിടെ മോശമില്ലാത്ത രീതിയിൽ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഓ തീർച്ചയായിട്ടും സർ ഇപ്പോൾ ഊട്ടിയിൽ ഫോറെസ്റ്റ് ഏരിയകളൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ ഗൈഡ്സുകളൊക്കെ വച്ച് ഇപ്പോൾ പുതിയ രീതിയിൽ കാണിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ ഒക്കെ ഉണ്ട് ഊട്ടിയിൽ ഫോറെസ്റ്റിനു ഉള്ളിലുള്ള റ്റെൻ്റ് റൂം സൗകര്യങ്ങൾ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ നമുക്ക് ആ തീർച്ചയായിട്ടും മെയിൻ സ്പോട്ടുകളൊക്കെ നമ്മൾക്ക് വൺ ഡേയിൽ ഫുൾ ആയിട്ട് കവർ ചെയാൻ പറ്റും സാർ ഇവിടത്തെ ഗവൺമെൻ്റ് കൺട്രോളിൽ ഉള്ളതെല്ലാം രാവിലെ ഒൻമ്പത് തൊട്ട് അഞ്ച് മണി വരെ ഓപ്പൺ ആണ് സർ എത്ര പേരായിട്ടാണ് വരുന്നത് ആ ഫാമിലിയായിട്ടാണ് ഓ ശരി സാർ അത് നല്ല ഒരു ട്രിപ്പ് ആയിരിക്കും സർ ഫാമിലിയിൽ എങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ ആ അവർക്കൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സർ ഇപ്പോൾ ഫ്ലവർ ഷോ തുടങ്ങുന്ന സമയത്ത് പത്തിന പത്തുതരം റോസാപ്പൂക്കളൊക്കെ ആണ് ഞങ്ങൾ നിരത്തി വയ്ക്കുന്നത്

ആ റേഞ്ചിലാണ് വരുന്നത് സർ അതേ എല്ലാം ഉൾപ്പെടും ഞങ്ങൾ സാറിന് ഫുഡ് ഇതിൽ പെടും ഫുഡും അക്കോമൊഡേഷനും എല്ലാം ചെയ്ത് തരും സർ

താങ്ക്യൂ